ഞാൻ ഒരു നർത്തകിയും നൃത്ത ആസ്വാതികയും കൂടിയാണ് ഇന്ന് സമൂഹത്തിൽ നൃത്ത അവതരണത്തിൽ വേദികൾ മെച്ചപ്പെടുത്താനായി വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് കേരളാ കലാമണ്ഡലം കേരളാ കലാമണ്ഡലത്തിനോട് അടുത്ത് തന്നെയാണ് എൻ്റെ വീടുള്ളത് അത് കൊണ്ടുതന്നെ അവിടെ ഒരുപാട് ഉയർന്ന് ഉയർന്ന നിലയിലുള്ള ആളുകളും വളരെ താഴ്ന്ന രീതിയിലുള്ള ആളുകളാണെങ്കിൽക്കൂടിയും ഒരേ രീതിയിൽ ഒരുമിച്ച് നല്ല രീതിയിൽ അവിടെ താമസിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നൃത്ത അവതരണത്തിൽ അവരുടെ വൈദക്ക്യം വളരെ മെച്ചപ്പെട്ടത് തന്നെയാണ് ഒരു നർത്തകി എന്ന നിലയിൽ തന്നെ ബാക്കി ഉള്ളവരെയും നൃത്തം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഈ നൃത്തം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് കൂടുതൽ ഓരോ പരുപാടി ഉണ്ടാകുമ്പോഴും ഓരോ അവരസരം ലഭിക്കുമ്പോഴും കൂടുതൽ കൂടുതൽ ആൾക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടികൾ നടത്താൻ ഞങ്ങൾ എന്നും ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നൃത്തം ചെയ്യുക എന്നുള്ളത് ഒരു കല എന്നുള്ളതിൽ ഉപരി ഒരു സന്തോഷത്തിലേക്കുള്ള ഒരു വഴി കൂടിയാണ് നൃത്തം ചെയ്യുന്നത് കൊണ്ട് നമ്മള് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അതിലൊന്നാണ് ടീം വർക്ക് നമ്മളെ എല്ലാവരും ഒരു ഒത്തൊരുമയോടെ ഓരോ കാര്യങ്ങളില് ഒരുപാട് പ്രയത്നിച്ച് ഒരുപാട് നല്ല ഒരു റിസൾട്ട് നമുക്ക് അവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പം അതൊരു നൃത്തം വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിട്ടുണ്ട് ഞാൻ വളരെ ചെറുപ്പം തൊട്ട് നൃത്തം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇന്നും നൃത്തം ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് വളരെ അധികം സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് അത് കൊണ്ടുതന്നെ എനിക്ക് സന്തോഷം തരുന്നപോലെ മറ്റൊരാൾക്കുംകൂടി അത് സന്തോഷത്തിന് ഒരു വഴി ഒരുക്കുകയാണെങ്കിൽ അത് നല്ലതല്ലെ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടുതന്നെ പരമാവധി എല്ലാവരെക്കൊണ്ടും ഒരു വട്ടമെങ്കിലും എന്തെങ്കിലും ഒരു പാട്ട് വച്ച് വെറുതെ എങ്കിലും നൃത്തം ചെയ്യാൻ ഞാൻ പ്രേരിപ്പിക്കാറുണ്ട് അവർക്കും താല്പര്യമുള്ളവർ പലപ്പോഴും അങ്ങനെ നിർബന്ധിച്ചിട്ടാണെങ്കിൽ കൂടിയും ആ അവര് ഒരുപാട് സന്തോഷത്തോടെ അത് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നൃത്തം ചെയ്യുക എന്നുള്ളത് വളരെ അധികമൊരു സന്തോഷവും സമാധാനം നൽകുന്ന ഒരു കല കൂടിയാണ് നൃത്തം അതുകൊണ്ടുതന്നെ എങ്ങനെ ഇത്രെയും എത്രയും പറ്റോ അത്രയും ആൾക്കാര് നൃത്തം ചെയ്യാൻ ഞാൻ എന്നും പ്രോത്സാഹിപ്പിക്കും അത് എനിക്ക് മാത്രമല്ല അവർക്കും കൂടി സന്തോഷം നല്കുന്ന ഒരു കാര്യമാണെന്നുള്ള ഒരു ചിന്തയോട് കൂടി തന്നെയാണ് ഞാൻ ഇത് ചെയ്യുന്നത്